പാരമ്പര്യ സവിശേഷതയെ പ്രചരിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും പരമ്പരാഗതഗത കളികൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് കാരണം ഓരോ നാട്ടിൻപ്രദേശങ്ങളിലേയും ഓരോ പരിപാടികള് നടക്കുമ്പോഴും അതിൻറ്റേതായ അംഗീകാരങ്ങൾ കളിക്കാര്ക്കു നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഉന്നതതലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള പ്രോത്സാഹനം നൽകുകയും അവരുടെ കഴിവിനെ അഭിനന്ദിക്കുകയും അതുപോലെത്തന്നെ ആ ആ കഴിവിനെ ഓരോ നാട്ടുകാരും വളരെ അധികമായി ആദരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവര് അവരുടെ മേലിലുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ പലരായി ഏറ്റെടുത്ത് അവർക്കുവേണ്ട കാര്യങ്ങളും അവരുടെ ഉന്നതതലങ്ങളിലേക്കെത്താനുള്ള കാര്യങ്ങളും നാടിനുവേണ്ടിയും എല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്